പ്രധാനം ആയിട്ടുള്ള പത്രങ്ങളെന്ന് പറയുന്നത് മലയാള മനോരമ ദീപിക ഇത് രണ്ടും ഞാൻ സ്ഥിരമായിട്ട് വരുത്തിക്കൊണ്ടിരുന്ന ആളാണ് പത്രങ്ങൾ വായിക്കും മനോരമയും കുറേ വായിക്കും ദീപികയും കുറേ വായിക്കും ഇതിങ്ങനെ കണ്ടും കേട്ടും വായിച്ചുമെല്ലാം ഇങ്ങനെ പോയി പോയി പോയി അവസാനം ഇപ്പം ഞാൻ എല്ലാവരുംകൂടി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മനോരമ അങ്ങ് നിർത്തി ഇപ്പം ദീപിക മാത്രമാക്കി പക്ഷെ എന്നാൽ ഒരു ഇതുണ്ട് ദീപികയ്ക്കകത്ത് വരുന്ന വാർത്ത പിറ്റേന്ന് മനോരമയ്ക്കകത്ത് കാണും മനോരമയ്ക്കകത്ത് വരുന്ന വാർത്ത അതിൻ്റെ പിറ്റേദിവസം ദീപികയ്ക്കകത്ത് കാണും ഇങ്ങനെ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടു മാറ്റിയും മറിച്ചുമൊക്കെ ഇടും ഇവർ എവിടെ നിന്നാണ് ഈ വാർത്ത എടുക്കുന്നത് പോലും അറിയത്തില്ല വർത്തകളൊക്കെ ഒരേ വാർത്ത ഒരുപോലെ വരുന്നത് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല പിന്നെ ചിലപ്പോഴൊക്കെ ഉണ്ട് കുറെയൊക്കെ ഉണ്ട് ഓരോരുത്തരുടെയൊക്കെ എന്തെങ്കിലും ഇതൊക്കെ നടന്നു കഴിഞ്ഞാലുടനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തുവെന്ന് പറഞ്ഞാലും ഈ രണ്ടു പേപ്പറുകൾ താരതമ്യപ്പെടുത്തി നമുക്കിപ്പോൾ ഒരാളെ കുറ്റം പറയുകയും ഒന്നും വേണ്ട പിന്നെ മനോരമയ്ക്ക് കുറേ പേപ്പറ് കൂടുതലുണ്ട് അവർക്കൊത്തിരി പരസ്യങ്ങളുണ്ട് ദീപികയ്ക്കാണെങ്കിൽ അതൊക്കെ കുറവാണ് അതുകാരണം അവരുടെ സർക്കുലേഷൻ കുറവാണ് മനോരമയ്ക്ക് സർക്കുലേഷൻ കൂടുതലുണ്ട് അവർക്കിതിനകത്ത് പരസ്യങ്ങൾ ഒത്തിരി ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങും ഇങ്ങും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വായിക്കാം പിന്നെ എഡിറ്റോറിയലുകൾ എഴുതുന്നതൊന്നും കൂടുതലായിട്ട് വായിക്കാറൊന്നും ഇല്ല കാരണം വായിച്ചിട്ട് വലിയ പ്രയോജനം ഇല്ലെന്നറിയാം ഇതിൻ്റെ ഇതെല്ലാം ഹെഡിങ്ങ് നോക്കി നോക്കി വിടുകയാണ് നമ്മുടെ മെയിൻ ഒരു സംഗതി ഞങ്ങൾക്ക് വെച്ചാൽ എല്ലാത്തിൻ്റെയും മനോരമയിലായാലും ദീപികയിലായാലും ഹെഡിങ്ങ് നോക്കും ഹെഡിങ്ങെല്ലാം നോക്കി അങ്ങോട്ടും പറഞ്ഞ് കൊടുക്കും അത്രയെ ഉള്ളു അല്ലാണ്ട് ഇതു വായിച്ച് കാണാതെ പഠിച്ച് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ രണ്ടിനകത്തും മെയിനായിട്ട് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ മരണക്കോളം ആരൊക്കെ എവിടെയൊക്കെ മരിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ വല്ലവരും മരിച്ചിട്ടുണ്ടോ അയൽപക്കത്ത് വല്ലവരും മരിച്ചിട്ടുണ്ടോ ഇതൊക്കെ പേപ്പറിൽ നോക്കി കുറെയൊക്കെ വീടുകളിൽ അറിയുന്നതിന് മുമ്പേ ചിലപ്പം പേപ്പറിൽക്കൂടെ അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം കുറേ നല്ലതാണ് അതൊക്കെ അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന ഇത് വെച്ച് നോക്കുമ്പം കുറെയൊക്കെ ബെറ്ററാണ് പേപ്പറുകളിലൊക്കെ കാര്യമായിട്ട് നല്ലതാണ് പത്രം എപ്പോഴും കുറേയൊക്കെ അറിവ് കിട്ടും കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിവും കിട്ടും എന്നാൽ അറിവ് ദോഷമായിട്ട് വരുന്നന്നതും ഉണ്ട് ഗുണമായിട്ട് വരുന്നതും ഉണ്ട് ചിലതൊക്കെ ചില തെറ്റായ വാർത്തകൾ വരും പിന്നെ പിറ്റേ ദിവസം അത് തിരുത്തി വരും ചിലപ്പം മാപ്പ് ചോദിച്ചു വരും ഇങ്ങനെയൊക്കെ പല സംഗതികളുണ്ട് ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നും എനിക്ക് അറിയത്തില്ല ഓർമ്മയും ഇല്ല ഞങ്ങൾ വീട്ടിൽ പിന്നെ വീട്ടിൽ മെയിനായിട്ട് പേപ്പറൊക്കെ വായിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളു ഭാര്യ ഒന്നും അങ്ങനെ വലുതായിട്ട് വായിക്കില്ല എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ചിലപ്പം നോക്കും ഹെഡിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കും മരണക്കോളവും പിന്നെ വായിക്കുന്നത് ഒക്കെ ഞാൻ ആവശ്യം ഉള്ളതൊക്കെ കുറച്ചുറക്കെ വായിക്കും അത് അങ്ങനെ ചെയ്തു ഇങ്ങന ആണെന്നും പറഞ്ഞുകൊണ്ട് ഉറക്കെ വായിക്കും വായിക്കുമ്പം അവൾകൂടി കേൾക്കും അപ്പം അങ്ങനെ കേട്ടു മനസ്സിലാക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ കേൾക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പേപ്പറ് വരുത്തുന്നത് ഒരു ഇതായിട്ട് നമുക്ക് നല്ലതാണെന്ന് പറയാം ഇപ്പം ദീപിക മാത്രമേ ഉള്ളു മനോരമ ഞാൻ അങ്ങ് നിർത്തി രണ്ടുംകൂടെ കൊണ്ടു പോകണതൊക്കെ രണ്ടിലും ഒരേ വാർത്തകളൊക്കെ തന്നെ അതാണെങ്കിൽ തലേദിവസവും പിറ്റേദിവസവും ആയിട്ടാണ് വരുന്നേത് പിന്നെ ഇത് ഒത്തിരി കാര്യങ്ങളൊക്കെ പാർട്ടി ബേസിലും മറ്റേ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത് എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അതുതന്നെ ആയിരിക്കും പേപ്പറ് മുഴുവൻ ഇനി എന്നാ വായിക്കാനാണ് ഒന്നും വായിക്കത്തില്ല ഹെഡിങ്ങ് നോക്കി അങ്ങ് വിടും അങ്ങനെയേ ഉള്ളു അത്രതന്നെ